ഞാൻ ഇന്നത്ത മെനു പറയാൻ വേണ്ടി വിളിച്ചതാണെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു കഴിച്ചത്

കടല പോലുള്ളത് ഒന്നും കഴിക്കാതിരിക്കുന്നത് ആയിരുന്നു നല്ലത് കുഴപ്പം ഇല്ല എന്നിട്ട് വർക്ക്ഔട്ട് എന്തെങ്കിലും ചെയ്തോ ജിമ്മിലും പോയില്ല ഓക്കെ ഓക്കെ ഓക്കെ എത്ര മണിക്കൂർ വൺ ഹവർ എങ്കിലും വർക്ക്ഔട്ട് ചെയ്യുമോ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഇന്നത്തെ ഇന്ന് കൂടുതലും നമ്മുടെ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് വെജിറ്റബിളും ഫ്രൂട്ട്സും ആണ് അപ്പം നമ്മളുടെ ഫുഡ്ഡ് ഇപ്പം അത് ഇപ്പം ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും കഴിക്കാം നമുക്ക് വെജിറ്റബിൾസ് കുക്കുമ്പർ തക്കാളി ക്യാരറ്റ് അങ്ങനെ ഉള്ളത് ഇപ്പം ജ്യൂസ് അടിച്ച് വേണമെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ആണെങ്കിലും കഴിക്കാം ഇതൊക്കെ ഹെൽത്തിന് നല്ലതാണ് കലോറീസൊക്കെ കുറയ്ക്കാനും നമ്മുടെ പിന്നെ നല്ലൊരു ഹെൽത്തി ഫുഡ്ഡും കൂടെ ആണ് അപ്പം ഉച്ചത്തേക്ക് ചോറ് കഴിക്കണമെങ്കിൽ കഴിക്കാം പിന്നെ മീറ്റ് മറ്റ് എന്തെങ്കിലും ആയിരിക്കുവല്ലൊ അല്ലെ ഇന്നത്തെ സൺഡെ ആയതുകൊണ്ട് കഴിക്കുന്നേന് കൊണ്ട് കുഴപ്പം ഇല്ല ഈ ആ വറുത്തത് ഒക്കെ കഴിക്കാതിരിക്കുക അപ്പം അതിൽ പിന്നെ എണ്ണയുടെ ഒക്കെ കണ്ടൻറ്റ് ഓയിൽ കണ്ടൻറ്റ് കൂടുതൽ ആയിരിക്കും അപ്പം വറുത്തതും പൊരിച്ചതും ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളത് പോലെ കഴിക്കാം പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണോട്ടോ പിന്നെ ഡിന്നറിന് എന്താ കഴിക്കാൻ ഉദ്ദേശിച്ചത് ചോറ് അവോയ്ഡ് ചെയ്യാട്ടോ ഡിന്നറിന് ചപ്പാത്തി ആക്കാ ഒരു ഏഴ് മണിക്കുള്ളിൽ ഡിന്നർ കഴിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഒത്തിരി ഒരു ഒമ്പത് പത്ത് മണി അല്ലെങ്കിൽ എട്ട് മണിക്ക് ശേഷം ആക്കുക അത് ഒരു ഏഴ് മണിക്കുളിൽ ഡിന്നർ സെറ്റ് ചെയ്യാൻ നോക്കുക ഇനി മുതൽ അങ്ങോട്ടേക്ക് അപ്പം ആ അതിൽ ചോറ് നന്നായിട്ട് അവോയ്ഡ് ചെയ്യുക പിന്നെ ഓട്സ് ചപ്പാത്തി അങ്ങനെ ഉള്ള ഇപ്പം ഗോതമ്പ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള എന്തെങ്കിലും ഐറ്റംസ് ദേ ചോറാവുമ്പം ഉണ്ടല്ലൊ ചോറിൽ അന്നജത്തിൻറ്റെ ഒക്കെ അംശം കൂടുതൽ ആയതുകൊണ്ട് വെയിറ്റ് നമുക്ക് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി ചോറ് അത് ഒരു തവി അത്ര ഒക്കെയേ ഉള്ളൂ അല്ലാതെ കൂടുതൽ ചോറ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്തേലും ഡൗട്ട് ഉണ്ടേൽ വിളിക്കുകേട്ടോ നന്നായി വെള്ളം കുടിച്ചോളണെ ശരി എന്നാൽ